ഹലോ ജനേഷ് സൂപ്പർ മാർക്കറ്റ് എന്തായിരുന്നു സാറേ വേണ്ടത് ആ ഇപ്പം വെജിറ്റബിൾസിനൊക്കെ ഓഫറുണ്ട് സാറെ അതായത് ഒരു തക്കാളി പുറത്തെയൊക്കെ നൂറ്റിപ്പതിനഞ്ച് രൂപയാണ് പക്ഷെ ഇവിടെ എൺപത് രൂപയ്ക്ക് ഒന്നരക്കിലോ തക്കാളി എൺപത് രൂപയൊക്കെയുണ്ട് അതെ എല്ലാത്തിനും ഉള്ളിക്ക് അഞ്ച് കിലോയ്ക്ക് നൂറു രൂപ വെജിറ്റബിൾസിനൊക്കെ നല്ല ഓഫറുണ്ട് അതേപോലെതന്നെ പിന്നെ വാഷിംഗ് പൗഡേഴ്സിന് നല്ല ഓഫറുണ്ട് എല്ലാ സാധനങ്ങൾക്കും ഓഫറുണ്ട് ഒന്നെടുത്താൽ നാല് ഉള്ള സൈസ് സോപ്പുകളൊക്കെ ഉണ്ട് സാറിന് എന്തൊക്കെയായിരുന്നു വേണ്ടത് ആ പഞ്ചസാരയ്ക്ക് ഓഫറുണ്ട് രണ്ടര കിലോയ്ക്ക് എൺപത് രൂപയെ വരുന്നുള്ളു നല്ല ഇപ്പം നല്ല അരികളൊക്കെ വന്നിട്ടുണ്ട് ജയയുണ്ട് മട്ടയുണ്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഉണ്ട് അതിനൊക്കെ വില കുറച്ച് കുറവാണിപ്പം ഒരു ഒരു കോംബോ ഓഫറുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ അതിന് അതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് വില കുറവായിട്ടാണ് പുറത്തു നിന്നുള്ളതിനെക്കാളും നമുക്കിവിടെ കുറച്ച് വില കുറച്ച് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് സാർ വേണമെങ്കിൽ വന്നു നോക്കാം വൈറ്റ് ആൻഡ് വൈറ്റ് നാല്പത്തെട്ട് രൂപയേ ഉള്ളൂ

നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാനങ്ങളാണ് അതേപോലെത്തന്നെ പിന്നെ ബീൻസ് പയറുകളുണ്ടല്ലോ കടല മമ്പയർ അതിനൊക്കെ വില കുറവുണ്ട് ഫ്രൂട്സ് എല്ലാം ഉണ്ട് മാങ്കോസ്റ്റിൻ തൊട്ടിട്ട് മുഴുവൻ എല്ലാ സീസൺ ഫ്രൂട്ടും ഉണ്ട് ഇപ്പം ആ വില ആ വില പുറത്തേതിനെക്കാളും നമുക്ക് നമ്മൾ എല്ലാം ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് സാറേ എന്തായിരുന്നു വേണ്ടത് അതെയോ ആ എല്ലാത്തിനും വില കുറവുണ്ടിപ്പം കുറച്ച് അതായത് ഒരു രണ്ടാഴ്ച്ചത്തേക്ക് എല്ലാത്തിനും പിന്നെ ഒരു കോംബോ ഓഫറ് പോലെയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല അതുവരെ എല്ലാത്തിനും വില കുറവുണ്ട് സാർ ഒന്ന് വേഗം വരികയാണെങ്കിൽ സാധനങ്ങളൊക്കെ വേഗം എടുക്കാമായിരുന്നു എല്ലാത്തിനും നല്ല വില കുറവുള്ള സമയമാണല്ലോ

ഓക്കെ താങ്ക് യൂ സാറേ തരികയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വരുമ്പം തന്നാൽമതി ക്വാളിറ്റി നോക്കി എടുക്കാമല്ലോ